ഞാനങ്ങനെ വലുതായിട്ട് അടുക്കളയിലൊന്നും കയാറാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല പിന്നെ ഞാൻ കണ്ടതിൽ വെച്ച് പിന്നെ എൻ്റെ വല്യമ്മച്ചിയാണ് കൂടുതലും അടുപ്പ് ഉപയോഗിക്കാനും വിറക് കീറി അടുപ്പ് ഉപയോഗിക്കാനായിട്ട് മുൻതൂക്കം കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മച്ചിക്ക് വലിയ രോഗങ്ങളൊന്നും ഇല്ല പക്ഷേ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഗ്യാസ് ഒരു ദിവസം ഇല്ലാതെ പറ്റത്തില്ല അപ്പം അമ്മയാണെങ്കിൽ എന്താണ് അതുകൊണ്ട് അമ്മയ്ക്ക് എപ്പഴും അസുഖങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ അപ്പം മറ്റ് ഇപ്പം ഇപ്പം പരിപാടി എളുപ്പമാക്കാൻ വേണ്ടിയാണ് എൽ പി ജി ഗ്യാസ് ഒക്കെ വന്നത് എങ്കിൽ തന്നെയും ആ പരിപാടി എളുപ്പമാവുന്ന കൂട്ടത്തിൽ തന്നെ എന്നാണ് നമ്മുടെ വീട്ടിലെ അമ്മമാർക്കൊക്കെ രോഗങ്ങൾ കൂടുക തന്നെയാണ് എപ്പോഴും പിന്നെയാണെങ്കിൽ എൽ പി ജി ഗ്യാസിൻ്റെ കണക്ഷൻ നമ്മുടെ സമയം ലാഭ്യതയാണ് അതിന് ഒരു ഇതുണ്ട് പിന്നെയാണെങ്കിൽ അതിൽനിന്ന് നേരിട്ട് നമ്മുടെ കൂടുതൽ അപകടങ്ങൾ ഈ ഗ്യാസിൽ നിന്നും ഉപയോഗിക്കുന്ന അശ്രദ്ധമൂലം അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയൊക്കെയുണ്ട്